നമ്മുടെ ശരീരത്തില് ശരീരത്തിന് വേണ്ടുന്നതായ ഊര്ജ്ജം ലഭിക്കുന്നത് ഒന്ന് ഭക്ഷണത്തിലൂടെയാണ് എന്നാൽ അത് കൂടാതെ നമുക്ക് മറ്റ് രണ്ട് വിധത്തിലും ശരീരത്തിന് ആവശ്യം ഉള്ള ഊര്ജ്ജം ലഭിക്കാന് സാധ്യതയുണ്ട് ഒന്ന് നീണ്ട നീന്തല് പരിശീലനം രണ്ട് കരയിലൂടെ നമ്മള് നടത്തുന്ന വ്യായാമത്തിൽ അതായത് കരയിലൂടെ ഉള്ള വ്യായാമം എന്ന് പറയുന്നത് ജിംനേഷ്യത്തിൽ പോവുക അതിലും അതുപോലെത്തന്നെയാണ് നീന്തല് നീന്തൽ പരിശീലിക്കുക നീന്തല്ക്കുളത്തിലോ അല്ലെങ്കിൽ ആഴം കുറഞ്ഞ ജലശായത്തിലോ നീന്തൽ പരിശീലനം നടത്തിയാല് ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലും ആവശ്യമായ ഊര്ജ്ജം വ്യായാമം കിട്ടുന്നു മസിലുകൾ ഉറയ്ക്കുന്നു ആവശ്യത്തിന് ശരീരത്തിന് ആവശ്യമായ ഊര്ജ്ജവും ലഭിക്കുന്നു വെള്ളത്തില് നീന്താനുള്ള പരിശീലനവും നമുക്ക് ലഭിക്കുകയാണ് കരയില്ത്തെ പരിശീലനത്തിൽ ആവുമ്പഴത്തേക്കും ശരീരത്തിന് ആവശ്യമുള്ള വ്യായാമം ലഭിക്കുന്നു മസില്കള് ഉരുണ്ടു കൂടുന്നു അതൊക്കെയാ അതെക്കെയാണ് കരയിലെ വ്യായാമത്തില് കിട്ടുന്നത് എന്നാല് നീന്തല് നീന്തലും പരിശീലിക്കുകയും പരിശീലിക്കുന്നതോടൊപ്പം എവിടെ നീന്താന് നമുക്ക് പരിശീലനം ഏത് അപകടത്തില്പ്പെട്ട് പോയാലും വെള്ളത്തിലിറങ്ങി ഒരു അപകടത്തില്പ്പെട്ട് പോയെങ്കില് നാം നീന്തി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കാന് രക്ഷപ്പെടാനുള്ള ഒരു മാര്ഗമായി നീന്തലിനെ കാണാം അതുപോലെ ശരീരത്തിന് വേണ്ടുന്നതായ വ്യായാമവും ലഭിക്കുന്നു അപ്പോള് വ്യായാമം ചെയ്യ്ന്നതിലുപരി നീന്തല് പരിശോധിച്ച് പരിശീലിച്ചാല് രണ്ട് ഗുണങ്ങളാണുള്ളത് ഏതെങ്കിലും തരത്തിൽ ഡാമിലോ ജലാശയത്തിലോ വീണ് പോയാല് ഇപ്പം നീന്തല് പരിശീലനം ഉള്ളവര്ക്ക് അത് നീന്തി അവിടുന്ന് രക്ഷപെടാന് കഴിയും ഈ ചില പ്രാധാനമായിട്ടും നീന്തലാണുള്ളത് രണ്ടാമത്തേത് ആണ് കരയിലെ ഊർജ്ജം കരയിലെ ഊര്ജ്ജം കിട്ടണമെങ്കിൽ നമ്മൾ ജിംനേഷ്യത്തിൽ പോകണം ജിംനേഷ്യത്തിൽപ്പോയാല് അവിടുന്ന് കിട്ടും പക്ഷെ അന്നേരവും നീന്തൽ പഠിക്കാനായിട്ട് നീന്തല് പരിശീലകരെ ഏല്പ്പിക്കുന്നില്ല നീന്തൽ പഠിക്കണമെങ്കിൽ ജലശായത്തില്ത്തന്നെ പോകുകയും അല്ലെങ്കില് സ്വിമ്മിംഗ് പൂളില്പ്പോയി പരിശീലനം നേടുകയും ചെയ്ത് നീന്തല് പഠിക്കുക തന്നെ വേണം എന്നിങ്ങ് അപ്പോള് ശരീരത്തിന് വേണ്ടുന്ന ഊര്ജ്ജവും ലഭിക്കും ഒരു രക്ഷ ആപത്തിൽനിന്ന് രക്ഷപെടാന് സാധിക്കുകയും ചെയ്യും